ഞാനാ വസ്ത്രത്തിനോടൊപ്പം തന്നെ മറ്റ് കുറച്ച് വസ്ത്രങ്ങളും കൂടി കണ്ടിരുന്നു അതിനേകദേശം അയ്യായിരത്തി സംതിങ്ങാകുമായിരുന്നു എന്നാൽ ആ വസ്ത്രങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഞാനീ കണ്ട മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ വില വരുന്ന ഈ വസ്ത്രം നല്ല മനോഹാരിതയുള്ളതും അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും ബഡ്ജറ്റിന് ചേരുന്നതുമായിരുന്നു അതു കൊണ്ടു തന്നെ ഞാൻ നിനക്കും ഈയൊരു സൈറ്റ് പറഞ്ഞു തരാമെന്നാഗ്രഹിക്കുന്നു ഈ ഒരു സൈറ്റിലുള്ള വസ്ത്രങ്ങൾ ഞാൻ മറ്റെവിടെയും കണ്ടിട്ടില്ല ഈ സൈറ്റത്രയും അധികം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓൺലൈൻ ഷോപ്പിങിൽ എനിക്കേറ്റവുമധികം ഇഷ്ടപ്പെട്ടൊരു സൈറ്റായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു ഈ സൈറ്റിൽ നിന്ന് ലഭിക്കുന്ന ഓരോ വസ്ത്രങ്ങൾക്കും അതിൻ്റേതായ ക്വാളിറ്റിയുള്ളതായിട്ടാണ് ഞാൻ അതിൻറ്റകത്തുള്ള കമൻറ്റുകൾ കണ്ടത് ഏകദേശം ഒരു ലക്ഷത്തിലധികം പേരുകൾ ഈ സൈറ്റിൽ നിന്ന് വസ്ത്രങ്ങൾ വാങ്ങിയതായിട്ട് ഞാനതിൽ കണ്ടു ആയിരത്തിന് താഴേക്ക് വരുന്ന വസ്ത്രങ്ങളും അതിന് മുകളിലേക്കു വരുന്ന ധാരാളം വസ്ത്രങ്ങളുണ്ട് ജീൻസുകളും ടോപ്പുകളും അതുപോലെ തന്നെ ആൺകുട്ടികൾക്കായിട്ടുള്ള വസ്ത്രങ്ങളായാലും പെൺകുട്ടികൾക്കായിട്ടുള്ളതായാലും അമ്മമാർക്കുളളതായാലും അച്ഛന്മാർക്കുള്ളതായാലും വിവിധ ആളുകൾക്ക് ചേരുന്ന രീതിയിലുള്ള ഫാഷനായിട്ടുള്ളതും അതുപോലെ തന്നെ നാടൻ രീതിയിലുള്ളതുമായിട്ടുള്ള വസ്ത്രങ്ങൾ ഈ സൈറ്റിൽ നിന്നു ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഈ സൈറ്റിൽ കേറവേ ഒരു പാവാടയും അതുപോലെ തന്നെ അതിന് ചേരുന്നൊരു ടോപ്പും കണ്ടു അത് വളരെ അധികം മനോഹാരിതയുള്ളതായിരുന്നു അതിൻ്റെ റേറ്റെന്ന് പറയുന്നത് ആയിരമായിരുന്നു എന്നാൽ അത് ആയിരം രൂപയേക്കാൾ കൂടുതലായിട്ട് റേറ്റ് വരുന്നത് ആണെന്ന് എൻ്റെ മനസ്സ് പറയുന്നു അതു കൊണ്ടു തന്നെ ഞാനാണ് വസ്ത്രത്തെ കുറിച്ച് മറ്റൊരു ഷോപ്പിംഗ് സെൻ്ററിൽ അന്വേഷിക്കുകയും അവിടെ ഈ ഇതേ വസ്ത്രം തന്നെ എന്നാൽ അതിന് അയ്യായിരത്തി സംതിങ്ങായിരുന്നു അപ്പോൾ ഈ ഓൺലൈൻ വസ്ത്രമെന്നു പറയുന്നത് വളരെ നല്ലതായിരുന്നു ഓൺലൈൻ ഷോപ്പിങ്ങിലൂടെ നമുക്ക് വളരെ അധികം ലാഭം ലഭിക്കുന്നുണ്ടെന്ന് ഞാനന്ന് മനസ്സിലാക്കി കാരണം കടയിൽ ആയിരത്തി സംതിങ്ങിന് ലഭിക്കുന്ന ഈ വസ്ത്രം എനിക്ക് സൈറ്റിൽ വെറും അഞ്ഞൂറ് രൂപയിൽ താഴെയായിട്ടാണ് കിട്ടുന്നത് അതിനർത്ഥം ഓൺലൈൻ ഷോപ്പിലൂടെ നമ്മൾ വാങ്ങിക്കുന്ന വസ്ത്രങ്ങളായിരിക്കും കൂടുതലായിട്ടും നമ്മുടെ പ്രോഫിറ്റിനു ചേരുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതു പോലെ തന്നെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ വസ്ത്രങ്ങളുടെ ക്വാളിറ്റി തന്നെയാണിതിനുള്ളത് അതേ നിറവും അതേ ക്വാളിറ്റിയും അതേ സ്റ്റിച്ചിങ് രീതിയുമെല്ലാം തന്നെ ഞാനീ കണ്ട ഈ ഓൺലൈൻ സൈറ്റിൽ കണ്ടീ വസ്ത്രത്തിന് അതിൻ്റേതായ ക്വാളിറ്റിയും അതു പോലെ തന്നെ സ്റ്റിച്ചിങ് രീതിയും എല്ലാം തന്നെ നല്ലതാണ് അതിൽ വരുന്ന ഓരോ കമൻറ്റ് സെക്ഷനുകളും ഞാൻ കൃത്യമായി വീക്ഷിച്ചിരുന്നു അതെല്ലാം തന്നെ വളരെ മനോഹാരിതയുള്ളതായിരുന്നു എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് ഈ സൈറ്റിലുള്ള ആ വസ്ത്രത്തെ കുറിച്ച് അതു കൊണ്ടു തന്നെ ഞാനത് നിനക്കും ഷെയർ ചെയ്യാമെന്നു വിചാരിക്കുന്നു നല്ലൊരു സൈറ്റാണിത് ഓൺലൈൻ സൈറ്റിനോട് നമ്മൾ ഷോപ്പിങ് ചെയ്യുന്നത് വളരെ നല്ലതാണെന്ന് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കി